ഒരു കലാകാരനെന്ന നിലയിൽ നമ്മൾ പല വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടേണ്ടതുണ്ട് എന്താണ് പറയുക ഒരു ക്രഫ്റ്റ് ചെയ്യുന്ന രാളാണെങ്കില് ക്രഫ്റ്റിൻ്റെ സാധങ്ങളൊക്കെ നമക്ക് ലഭ്യമാവലൊക്കെ പ്രയാസങ്ങളൊക്കെയാണ് പേപ്പറിനാണെങ്കിലും പശ കത്രിക തുടങ്ങിയ എല്ലാ സാധനങ്ങളും വേണം അപ്പോൾ അവയ്ക്ക് ഒക്കെ പൈസയൊക്കെ കൂടുതലാണെങ്കിലും നമുക്കെല്ലാവർക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാവർക്കും ഒന്നും വാങ്ങാനായിട്ട് പറ്റത്തില്ല ആ പിന്നെ പെയിൻ്റിങ്ങ് ചെയ്യുന്നവരുടെ ഒരാൾക്കാണെങ്കിൽ തന്നെ പെയിൻ്റ് വാങ്ങണം ബ്രഷ് വാങ്ങണം ആ അത് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പം അതിനൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വച്ച് നല്ല വിലയാണ് എല്ലാത്തിനും പൈസ കൂടിക്കൊണ്ടിരിക്കുകയണ് എല്ലാവർക്കുമൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ ഇപ്പം ഡ്രസ്സിലൊക്കെ എന്താണ് പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിനുള്ള മുത്തും നൂൽ തുടങ്ങിയ പിന്നെ പശ തുടങ്ങിയ സാധങ്ങൾ ഒക്കെ വാങ്ങണം അതിനാണെങ്കിൽ നല്ല പൈസയാണ് അപ്പം അതൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല പിന്നെ നമ്മൾ ഉള്ളത് വച്ചൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്താണ് പറയുക ഒരു പെയിൻ്റിങ്ങ് കാരനാണെങ്കിൽ തന്നെ ഉള്ള കളറൊക്കെ വച്ചിട്ടൊക്കെ നമ്മൾ മാക്സിമം പെയിൻ്റിങ്ങൊക്കെ ചെയ്യുക പിന്നെ ക്രഫ്റ്റ് ഒക്കെയാണെങ്കിലും പഴയ പേപ്പറുകളും പത്രങ്ങൾ പിന്നെ ബുക്കിൻ്റെ എഴുതിയ താളുകളൊക്കെ വച്ചിട്ട് നമ്മൾ കുറേയൊക്കെ ചെയ്യുക പിന്നെ എന്താണ് പറയുക ഇത്തിരി പഴയ നൂലും കുറച്ച് മുത്തുകളൊക്കെ വച്ചിട്ട് മാക്സിമം ചെയ്യുക പിന്നെ എന്താണ് പറയുക നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എന്താണ് പറയുക നാച്ചറലായിട്ടുള്ള കളറൊക്കെ യൂസ് ചെയ്യുക ഇല അരച്ചതും അങ്ങനെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക പിന്നെ ക്ലേ ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കും പേപ്പറൊക്കെ നനച്ച് കുതിർത്ത് പശയൊക്കെ ചേർത്ത് കുഴച്ച് നമുക്ക് ക്ലേയൊക്കെ വീട്ടിലുണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ പെയിൻ്റ് പൗഡറൊക്കെ കലക്കി പൗഡറും പശയൊക്കെ വെള്ളമൊക്കെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കളറൊക്കെ ചേർത്ത് കുറച്ച് പെയിൻ്റുകളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അത് വച്ച് നമുക്ക് പെയിൻ്റിങ്ങ് ചെയ്യാം പിന്നെ പേപ്പർ ക്രാഫ്റ്റിന് ഒക്കെയാണെങ്കിലും നമുക്ക് ഉപയോഗിച്ച പേപ്പറുകൾ നമുക്ക് ആവശ്യമില്ലാത്ത പേപ്പറുകളൊക്കെ വച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് പറയുക തുണീലൊക്കെ ആണെങ്കിലും പെയിൻ്റിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യാം പിന്നെ മുത്തുകളൊക്കെ പഴയ മുത്തുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ വേണ്ടാത്ത ഉടുപ്പിലെ ഒക്കെ മുത്തുകളൊക്കെ പിന്നെ നമുക്ക് എന്താണ് പറയുക കളറിങ്ങൊക്കെ ചെയ്യാം ആ എന്താണ് പറയുക ക്രയോണും സ്കെച്ചൊക്കെ വച്ച് നമുക്ക് കളറിങ്ങൊക്കെ ചെയ്യാം പിന്നെ പിന്നെ ഏന്താണ് പറയുക പിന്നേ നമുക്ക് പഴയ ഡ്രസ്സിലെ മുത്തുകളൊക്കെ നമുക്ക് പുതിയ ഡ്രെസ്സിലൊക്കെ പിടിപ്പിക്കാം പിന്നേ പിന്നെ എന്താണ് പറയുക പിന്നെ പശയൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കുറച്ചൊക്കെ ഉപയോഗിക്കാം പിന്നെ ഉള്ള സാധനം വച്ച് മാക്സിമം നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ എല്ലാത്തിൻ്റെ വിലയൊക്കെ കാരണം എല്ലാർക്കും വാങ്ങാൻ പറ്റണം എന്നില്ല പഷേ ഉള്ളതൊക്കെ വച്ച് നമ്മൾ എല്ലാം ഒന്ന് അഡ്ജെസ്റ്റെ് ചെയ്ത് നമ്മുടെ കഴിവ് പരമാവധി നമ്മൾ മെച്ചപ്പെടുത്തുക പിന്നെ പിന്നെന്താ പറയാ ഒരു സീരിയയിലോ സിനിമേലൊക്കൊര് അഭിനയിക്കുന്ന ആളാണെങ്കിൽ തന്നെ മാക്സിമം ഒരു ഓർണമെൻറ്സ് വാങ്ങാണെങ്കിലും അതൊന്നും കേടാക്കി കളയാതെ അടുത്ത സംഭവത്തിലേക്ക് അത് സൂക്ഷിച്ച് വയ്ക്കാം പിന്നീട് അതുപോല തന്നെ ഡ്രെസ്സാണെങ്കിലും അങ്ങനൊക്കെ മാറ്റി വയ്ക്കാം പിന്നെ പിന്നങ്ങനെ വള മാല സാധനങ്ങളൊക്കെ നമക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും അന്നപ്പോൾ അത് അടുത്ത ഒരു സീരിയലിലോ സിനിമയിലേക്കോ നമുക്ക് അത് ആവശ്യം വരും അന്നപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം അന്നപ്പത്തേക്ക് നമുക്ക് പൈസയൊക്കെ ലാഭിക്കാം ആ അതുപോലെ എന്താണ് പറയുക സീരിയലും സിനിമയിലും അഭിനയിക്കുന്ന അവൾ ആണെങ്കിൽ ആണെങ്കിലും പല വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്നുണ്ടാവും പല സാധങ്ങളും നമുക്ക് കിട്ടണം എന്നുണ്ടാവാത്തില്ല പിന്നേ എപ്പോഴും പോയി വരാനൊന്നും പറ്റത്തില്ല പിന്നേ പൈസയൊക്കെ കുറവായിരിക്കും അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് കണ്ട്രോൾ ചെയ്ത് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരിക പിന്നെ സാധനങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം പേപ്പറാണെങ്കിലും പശ എല്ലാം നമ്മളൊന്ന് ഉള്ളത് പോലെ എല്ലാം ഒന്ന് ഇതാക്കുക പിന്നെ എന്താണ് പിന്നേ നാച്ചുറൽ കളറുകൾ ഉപയോഗിക്കുക അതേ പോലതന്നെ ക്ലേയൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം പിന്നെ മൈദയൊക്കെ കുഴച്ച് ക്ലേ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ ഒക്കെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വച്ച് നമ്മളുടെ കഴിവ് പരമാവധി മെച്ചപ്പെടുത്താനായിട്ട് ഒക്കെ നമുക്ക് ശ്രമിക്കാം അവധിക്കാലത്തൊക്കെ ഇങ്ങനെ മെച്ചപ്പെടുത്തി ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് നോക്കാം അങ്ങനെ ഒക്കെ ചെയ്യാം